തീർച്ചയായും ഞാൻ കരുതുന്നു ഇന്ത്യയിലെ കലാകാരന്മാർക്ക് ഒരു പ്രാധാന്യവും നൽകുന്നില്ല അവർക്ക് വേണ്ട അവരുടെ ഉന്നതിയിലേക്ക് അവരെ എത്തിക്കുന്നില്ല എന്ന് ഞാൻ കരുതുന്നു കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോൾ മൊത്തമായിട്ട് നടക്കുന്നത് അഴിമതിയാണ് പൈസ എവിടെ ഉണ്ടോ അവിടെ ആൾക്കാരുണ്ട് എന്നുള്ള രീതിയിലാണ് എല്ലാകാര്യങ്ങളും മുന്നോട്ടേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള കലാകാരന്മാർക്ക് ആർക്കൊക്കെ പൈസ ഉണ്ടോ അവർ മുന്നോട്ടേക്ക് പോകുന്നു പക്ഷേ സാധാരണക്കാരായ ആൾക്കാർക്ക് ഒരു പ്രാധാന്യം നൽകുന്നില്ല ഇപ്പം ഒരു ഡാൻസ് വേദി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ നടത്തുന്നത് അഴിമതിയാണ് അഴിമതിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പണം പണം വാരി എറിയ്യ കുട്ടികളെ മുന്നോട്ടേക്ക് നയിക്കുക പണം ഇല്ലാത്ത കുട്ടികളോ അവിടെ താഴ്ന്ന് തന്നെ കിടന്നോട്ടെ എന്നുള്ള ചിന്താഗതിയാന്ന് പല ടീച്ചർമാർക്കും പല വേദിയിലിരിക്കുന്ന ജഡ്ജസിനു ഒക്കെ നമുക്ക് കാണാൻ വേണ്ടീറ്റ് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവണത ഉള്ളത് കൊണ്ടന്നെ എന്ത് സംഭവിക്കുന്നില്ല കലാകാരന്മാർ എവിടെയും എത്തുന്നില്ല നല്ല കലാബോധമുള്ള കുട്ടികൾ എവിടേം എത്താണ്ട് നിൽക്കുന്നു ഓരോ കുട്ടികളേക്കെ സങ്കടം കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് സങ്കടം വരും കാരണം അവർക്ക് സാധാരണക്കാരായിരിക്കും അവർക്ക് പൈസ ഇല്ല പൈസ വാരി എറിയാൻ അവരുടെ കയ്യിൽ അവരുടെ കയ്യിൽ പൈസ ഇല്ല അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു അവർ എവിടേം എത്തുന്നില്ല എന്നൂള്ളതാണ് പൈസ എറിഞ്ഞു കൊടുക്കാനുള്ള രക്ഷിതാക്കൾടെ മക്കളാണെങ്കിൽ അവരെല്ലാടുക്കിയെത്തുന്നു പക്ഷേ നല്ല കലാബോധം ഉണ്ടായിട്ടും സ്റ്റേജിൽ ഒരുപാട് സ്റ്റേജിൽ പിന്നെ അരങ്ങേറിയിട്ടും കുട്ടി എവിടെ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ അഴിമതി തന്നെയാണ് നടക്കുന്നത് വേറൊന്നും അല്ല അങ്ങനെ ഒട്ടും തന്നെ പ്രാധാന്യം കൊടുക്കാത്ത ഒരു രീതി കണ്ട് വരുന്നുണ്ട് അത് തന്നെയാന്ന് പറയാനുള്ളത്